ആ ആ ഇവിടെ എന്തൊക്കെ പൂക്കളുണ്ട് ഓക്കെ ആ ഞങ്ങളിവിടെ കോളേജില് ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷന് വേണ്ടിട്ട് ഒരു പതിനഞ്ചരേൻ്റെ പൂക്കളാണ് ഞങ്ങള് പ്രതീക്ഷിക്കണത് അപ്പം അതിനനുസരിച്ചുള്ള പൂവുണ്ടാകുമോ ആ ബൾക്കായിട്ട് തന്നെ വേണം ആ ആ കാണണം കളറൊക്ക വേണം ആ ആ ആ ആ മുല്ലപ്പൂ അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടാകുമോ ആ ആ ആ ആ അതല്ലേ

അതെ അതിപ്പം ഇവിടെ ഉണ്ടോ അതോ ഇനി അതെടുക്കാൻ പോണോ ആ ആ ഞങ്ങൾക്ക് എല്ലാ ആ അതെ ഇപ്പോൾ ഇതിലുള്ള എല്ലാ ഒര് പത്തുകിലോ ഒക്കെ എടുക്കാൻ ഉണ്ടാവൂലേ ആ ആ നാളെ രാവിലേക്കാണ് വേണ്ടത് ആ ഓക്കെ എല്ലാത്തിനും ഒരേ റേറ്റാണോ അതോ വെവ്വേറെ അങ്ങനെ എന്തെങ്കിലുണ്ടോ ഓക്കെ അപ്പം നാളെ ഇങ്ങോട്ട് ഡറക്ടായിട്ട് വരുമൊ വരണോ അതോ ഞങ്ങൾ കോളേജിൽ കൊണ്ടു വന്ന് എത്തിക്കോ ആ അതേ നാളെ രാവിലേക്ക് ആ ഞാൻ അപ്പോൾ അതേല്ലേ അപ്പം മൊത്തത്തില് എത്രയാവും എമൗണ്ട് എത്രയാവും മ് ആ നാളേക്ക് പാക്കെയ്താൽ മതി അപ്പോൾ ആ ആ അമ്പത് അല്ലേ റോസിനോ റോസാപ്പൂ ആ ആ ഏതൊക്കെ കളറുണ്ടാവും യെല്ലോ കിട്ടില്ല പത്തു രൂപാ ആ ആ ആ ഏഹ് ആ ആഹ് ഓക്കെ ഓക്കെ

എല്ലാം ഒരു പത്തുകിലോ എടുക്കാൻ മുല്ലപ്പൂ സപ്രെറ്റായിട്ട് റോസ് ഓ അങ്ങനെയാണോ റോസ് ഒര് അമ്പതെണ്ണം വലുതാണോ അതോ ചെറുതാണോ ആ ആ ഓക്കെ ആ ആ ഓക്കെ

ആ ആ പിന്നെ മുല്ലപ്പൂ ഉണ്ടാവില്ലേ

മ് എൺപത് അല്ലേ ഒരു പത്ത് വേണ്ടി വരും അത് വേറെ മാറ്റി വെക്കണം ബാക്കിയെല്ലാം ഒരുമിച്ച് പാക്കെയ്താലും മതി ആ മ് മ് എമൗണ്ട് എത്രവരും മൊത്തത്തില് ആ മ് ഇന്ന് തന്നെ തരാണോ അതോ നാളെ രാവിലെ തന്നാൽ മതിയോ

ആ ഓക്കെ തന്നാൽ മതി അല്ലെ ആ ജീപേയ് ചെയ്ത് തരാം അഡ്വാൻസ് ബാക്കി നാളെ വന്നിട്ട് തരാം കയ്യിൽ തരാം പൈസ മ് ആ ശരി